മലയാളികളില്ത്തന്നെ മലയാളഭാഷയില്ത്തന്നെ ഉച്ഛാരണത്തിലും ഉപയോഗിക്കുന്ന അതിനും വളരെയധികം വൈവിധ്യങ്ങളുണ്ട് അതില് ഓരോത്തരും അവരുടെ ഐഡന്റിറ്റി നിലനിര്ത്താന് വേണ്ടി ആ ഭാഷതന്നെ ഉപയോഗിക്കാറുമുണ്ട് ഉദാഹരണമായി തിരുവനന്തപുരത്ത് എന്തര് എങ്ങട്ട് അങ്ങട്ട് അപ്പൊയീ എന്നുള്ള ഭാഷകള് അവര് ചോദിക്കാറുണ്ട് എന്നാല് അത് തന് അത് തിരുത്താനോ അവരത് അച്ചടിഭാഷയിലേക്ക് മാറാനോ അവറൊരിക്കലും തയ്യാറാവുകയില്ല അവരുടെ ഐഡെന്റി അത് തന്നെയാണ് അതുപോലെ കോട്ടയത്ത് ജനിച്ച് വളര്ന്നവരാണെങ്കില് അവര് അവരുടെ അച്ചടിഭാഷ തന്നെയാണ് മലയാള അവരുടെ ഭാഷയായി ഉപയോഗിക്കുന്നത് ശൈലിയായിട്ടുപയോഗിക്കുന്നത് അവരതൊരിക്കലും ഏത് സ്ഥലത്ത് പോയി താമസിച്ചിരുന്നാലും അവരത് ഒരിക്കലും മാറ്റാൻ മാറ്റപ്പെടാറില്ല അവർ മറ്റാനത് അവര്ക്കത് സാധിക്കത്തുമില്ല അങ്ങനെയാണ് മലയാളികള് അവരുടെ ഭാഷയെ അത്രമാത്രം സ്നേഹിക്കുന്നതും അവരെ മലയാള ഭാഷ അവരെ ഒരുപാട് സ്വാധീനിക്കുന്നുമുണ്ട് ഏത് ഒരു മനുഷ്യന് നമ്മളെ കണ്ടാലും അവരുടെ ആ സ്ലാങ്ങില്ക്കൂടെ നമ്മൾക്ക് അവരെ ഏത് ജില്ലയിലുള്ളവരാണന്ന് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കും അത് മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവം തന്നെയാണ്